ഇന്ന് കൃഷി രീതികൾ പൊതുവെ മനുഷ്യൻ കൃഷിയിൽ നിന്നും മാറിക്കൊണ്ടിരിക്കയാണ് എങ്കിലും നമ്മുടെ പഴയ പാരമ്പര്യ രീതി അനുസരിച്ച് കപ്പ വാഴ തെങ്ങ് കമുക് കാപ്പി കൊക്കോ ഇങ്ങനെയുള്ള പല വൃക്ഷങ്ങളും കായികനികളും ഒക്കെ നമ്മൾ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്ത് കൊണ്ടിരിക്കുന്ന രീതിയാണ് നമ്മളിൽ ഉള്ളത് ഇന്ന് തെങ്ങ് കൃഷിക്ക് ആണെങ്കിൽ തെങ്ങ് നമ്മൾ വെച്ച് വാർന്ന് വരുമ്പോൾ അതിന് ഒത്തിരി രോഗപീടകൾ ഉണ്ടാകുന്നുണ്ട് ആ രോഗപീടകൾക്ക് അതിൻ്റെതായ രീതിയിലുള്ള മരുന്നുകൾ നമ്മൾ ചെയ്യണം പക്ഷേ കണ്ടമാനം വിഷം ഒക്കെ ഉപയോഗിച്ച് നമുക്ക് നമുക്ക് തന്നെ ദോഷം വരുന്ന രീതിയിൽ അതിനെ മാറ്റി മറിക്കുന്നു വാഴ കൃഷി ചെയ്താൽ വാഴയ്ക്ക് അമിത വിളവുകൾ കിട്ടുന്നതിന് വേണ്ടി ഈ രാസപ്രവർത്തനങ്ങൾ ഉള്ള കെമിക്കലുകൾ കണ്ടമാനം ചേർത്ത വളങ്ങളും അതൊക്കെ ഇട്ട് കൊടുത്തു വാഴ നല്ല പുഷ്ടി വളർന്നു വരും നല്ല കൊലയൊക്കെ ഉണ്ടാവും പക്ഷേ ആ കായ് നമുക്ക് ഭക്ഷ്യ യോഗ്യമല്ല സത്യം പറഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല നമ്മളെ കഴിക്കുന്നു പക്ഷേ അങ്ങനെ അല്ലാതെ നമ്മുടെ പാരമ്പര്യ രീതിയിൽ ചാണനും പച്ചിലകളും അങ്ങനെയുള്ള മരുന്നുകളൊക്കെ പച്ചിലകളും പിന്നെ ഇതെ കൂട്ട് നാടൻ രീതിയിലുള്ള മരുന്നുകളും ഒക്കെ ചെയ്ത് വാഴ നിലനിർത്തി നല്ല രീതി കൊണ്ടു പോവാൻ നമുക്ക് കഴിയും അതോ തെങ്ങ് നന്നായിട്ട് തടവൊക്കെ എടുത്ത് പച്ചിലകളും മറ്റ് ചാണനും എന്ന അങ്ങനെയുള്ള ജൈവ കൃഷിയിൽ നമ്മൾ തെങ്ങിനെയും കമുകനെയും കപ്പ വാ വാഴ കാച്ചിൽ ചേന ഇങ്ങനെയുള്ളത് ഒക്കെ നമ്മൾ ആ നമ്മുടെ രീതിയിൽ തന്നെ പാരമ്പര്യമായിട്ടുള്ള ആ രീതിയിൽ തന്നെ നമ്മൾ ചെയ്താൽ നമ്മൾ മണ്ണിലേക്ക് നടുമ്പോൾ ആ മണ്ണൊക്കെ കളച്ച് ഇളക്കി അതിന് ചുറ്റും കാടെല്ലാം കളഞ്ഞ് കുമ്മായം ഒക്കെ ഇട്ട് ചാണനും പച്ചിലകളും ഒക്കെ മാത്രം ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യാണെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ മക്കളുടെയും വരും തലമുറക്കയും അത് വളരെ ഗുണപ്രദമായിരിക്കും മണ്ണിന് നല്ലതായിരിക്കും മണ്ണ് പഴയ രീതി തന്നെ ഫലസമ്പുഷ്ടമായിട്ട് അത് നിലനിൽക്കും അല്ലാതെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ മണ്ണ് പോവും നമ്മുടെ മക്കളുടെ ഭാവി പോവും അവരുടെ വയസ്സിനേം അവരുടെ ആരോഗ്യത്തെയും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ദോഷക സംഭവിക്കുന്ന രീതിയിലാണ് ഇത് സംഭവിക്കാറുള്ളത് അപ്പം നമ്മൾ എന്തിനും ജൈവ രീതിയിലുള്ള വളങ്ങൾ ചെയ്ത് ആ അതിന് ആവശ്യമായ വളവും വെള്ളവും എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ വളർത്തി കൊണ്ട് വന്നാൽ അത് നമ്മുടെ ജീവിതത്തിന് തന്നെ നല്ല നമ്മുടെ മനസ്സിന് ശരീരത്തിനും ഒക്കെ നല്ല ആരോഗ്യത്തോടുകൂടി നമുക്ക് ജീവിക്കുന്നതിന് ഉള്ള അവസരം നമ്മൾ അങ്ങനെ ചെയ്താലും ഉണ്ടാവും പാരമ്പര്യം കൃഷികൾ അങ്ങനെയാണ് പോകേണ്ടത് അല്ലാതെ ഇപ്പോഴത്തെ പുതിയ രീതിയിൽ കൃഷിയും നല്ലതാണ് പക്ഷേ അത് നമുക്ക് നല്ലതല്ല മനുഷ്യന് ഈ രാസവളങ്ങളെലാം ചെന്ന് കയറി നമുക്ക് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മുടെ ജീവിതം തന്നെ മാറ്റി മാറിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമ്പത് എല്ലാം ആദ്യമേ നന്നായിട്ട് സമ്പത്തെക്കെ ഉണ്ടാവും പക്ഷേ അത് അതേ പടി നമ്മളെ ആശുപത്രികളിലും എല്ലാം കൊടുത്ത് പോകണ്ടി വരും അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും നമ്മുടെ നാടിന് അനുയോജ്യമായ രീതിയിലുള്ള കൃഷി രീതികൾ വളവും ഒക്കെ ചെയ്ത് എപ്പോഴും എപ്പോഴും ആവർത്തി അവർത്തി പറയാൻ കഴിയുന്ന കാര്യം ജൈവവളങ്ങൾ കൂടുതൽ ഉപയോഗിച്ച് കൃഷി ചെയ്യുക എന്നുള്ളത് ആയിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ കാര്യം ഇതാണ് എനിക്ക് ഇതിനെ പറ്റി ചുരുക്കി പറയാനുള്ളത്